വസ്ത്രങ്ങള് നമുക്ക് പൊതുവേ പല തരത്തിൽ കഴുകാം ബക്കറ്റിലിട്ട് കഴ്ന്ന് കഴുകുന്നവരുണ്ട് അലക്ക് കല്ലിൽ വെച്ച് കഴുകുന്നവരുണ്ട് തോട്ടിൽ പോയി കഴുകുന്നവരുണ്ട് വാഷിങ് മെഷീനിലിട്ട് കഴുകുന്നവരുണ്ട് പിന്നെ പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് കഴുകുന്നവരുണ്ട് അങ്ങനെ പല തലത്തിലുള്ള കഴുകലുകളുണ്ട് പിന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നവരുണ്ട് സോപ്പ് പൊടി ഉപയോഗിക്കുന്നവരുണ്ട് ലിക്ക്യുഡ് ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ പല തലത്തിലാണ് പലരും വസ്ത്രങ്ങള് കഴുകുന്നത് തോട്ടിലൊക്കെ പോയി കഴുകൽ എന്നുവെച്ചാൽ സുഖമാണ് ഇഷ്ടം പോലെ വെളളം ഒക്കെ എടുത്ത് നന്നായിട്ട് കഴുകാം എന്നാൽ ഇപ്പോഴത്തെ വേയിലിന്റെ സാഹചര്യം മൂലം പല വീടുകളിലും വെള്ളത്തിന്റെ ക്ഷാമം ഒക്കെ ഉണ്ട് അതിനാല്ത്തന്നെ വസ്ത്രങ്ങള് കഴുകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്താണ് വെള്ളം അമിതമായി ഉപയോഗിക്കാതെ കുറഞ്ഞ വെള്ളത്തിൽ കൂടുതല് തുണി അലക്കാന് പലരും പരിശ്രമിക്കുകയാണ് ചിലതൊക്കെ നന്നായിട്ട് പോയി സോപ്പ് പതയൊക്കെ പോയി വേഗം അലക്കി വേഗം ഉണക്കാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട് പിന്നെ പല കാലാവസ്ഥകളില് നമ്മള് പല രീതിക്കാണ് ഉണക്കുന്നത് വേയിൽ ആവുമ്പം നമുക്ക് അഴയിൽ ഇട്ട് ഉണക്കാം പാറയിൽ കൊണ്ടുപോയി വിരിച്ചിടാം അങ്ങനെയൊക്കെ ഉണക്കാം എന്നാൽ മഴയത്താണെങ്കിൽ ഷെഡ് ഒക്കെ കെട്ടി അതിന്റെ ഉള്ളിലിട്ട് വേണം ഉണക്കാന് പിന്നെ പകുതി ഉണങ്ങിയിട്ടുണ്ടാവില്ല തേച്ചിട്ടൊക്കെ വേണ്ടിവരും ഉണക്കാന് പിന്നെ കുറച്ചൊക്കെ മേത്ത് കിടന്നുണങ്ങും അങ്ങനെയൊക്കെയാണ് നമ്മൾ പലരും കഴിക്കുന്നത് പിന്നെ പിന്നെ അത് നന്നായിട്ട് വെളളം ഒക്കെ പിഴിഞ്ഞ് കളഞ്ഞും അങ്ങനെയൊക്കെയാണ് മഴക്കാലത്തൊക്കെ പലരും ഇങ്ങനെ ഒക്കെത്തന്നെയായിരിക്കും പിന്നെ വാഷിങ് മെഷീൻ ഉള്ളവര്ക്കാണെങ്കിൽ പോലും മഴക്കാലത്താവുമ്പം പൊതുവേ കറണ്ട് പോക്കൊക്കെ സാധാരണയാണ് അപ്പോൾ ഒന്ന് കറണ്ട് പോയാൽ പിന്നെ ഉണക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്താണ് വേനല്ക്കാലത്താണെങ്കിൽ തന്നെ വെള്ളം അമിതമായി ഉപയോഗിക്കാനൊന്നും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വാഷിങ് മെഷീനിൽ കഴുകലൊന്നും നടക്കത്തില്ല പിന്നെ അതൊന്ന് കംപ്ലയിൻറ് ആയാൽ അത് നന്നാക്കാനൊക്കെ ചിലവ് കൂടുതൽ ആയതുകൊണ്ട് പലരും ഇപ്പോഴും കൂടുതൽ പേരും കല്ലിലിട്ടൊക്കെ തന്നെയാണ് അലക്കുന്നത് പിന്നെ എന്താണ് കല്ലിലിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അലക്കുമ്പം നന്നായിട്ട് പോയി ചെളിയൊക്കെ പോവും പിന്നെ നല്ല രസമാണ് തോട്ടിലൊക്കെ പോയി അലക്കാനാണെങ്കിലും നല്ല രസമാണ് ഇഷ്ടംപോലെ വെളളം ഒക്കെ എടുക്കാം പിന്നെ നല്ല വേയിൽ ഉണ്ടാവും അതിലൊക്കെയിട്ട് ഉണക്കാം അങ്ങനെ കുറേപ്പേർ കൂടി ഇങ്ങനെ പോവും പിന്നെ തോട്ടിൽ നിന്ന് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് കയറിവരാം പിന്നെ സോപ്പ് ഉപയോഗിക്കുന്നവര്ക്ക് പലരുടെയും കയ്യിൽ നിന്ന് തൊലി പോവും പലര്ക്കും പല സോപ്പുകളും പറ്റില്ല അലര്ജി ഉള്ളവരുണ്ടാവും കാലിലത്തെ തൊലി പോവലും കയ്യിലത്തെ തൊലിയൊക്കെ പോവുന്നവരുണ്ട് പിന്നെ ചിലര്ക്ക് നല്ല മണം വേണ്ടി വരും അപ്പം അവർ കംഫർട്ട് ഒഴിക്കും പിന്നെ പല ചില സോപ്പുകൾക്ക് നല്ല മണമുണ്ടാവും സോപ്പ് പൊടിക്ക് നല്ല മണമുണ്ടാവും എന്നാൽ ചിലതിനാവട്ടെ നോക്കുമ്പം നല്ല മണം ഉണ്ടാവും പക്ഷേ കഴുകിക്കഴിഞ്ഞാൽ ഒട്ടും മണം ഉണ്ടാവത്തില്ല അങ്ങനെയുള്ളവയുണ്ട് അപ്പം നമ്മൾ കംഫർട്ട് ഒക്കെ മുക്കി നല്ല മണപ്പിച്ച് നല്ല സെറ്റ് ആക്കി ഇട്ടുകൊണ്ട് പോവും അങ്ങനെ പല തരത്തിലാണ് പലരും അലക്കുന്നത് പിന്നെ എന്താണ് ഉണക്കുന്നതും പല തരത്തിലാണ് അഴ കെട്ടിയും ടാര്പ്പിന്റെ അടിയിൽ ഇട്ടും തേച്ചും ഒക്കെ ഉണക്കുന്നവരുണ്ട് പാറയിൽ ഇട്ട് ഉണക്കുന്നവരുണ്ട് പല തരത്തിലാണ് പലരും ഉണക്കുന്നത് പിന്നെ വെള്ളം അമിതമായിട്ട് പാഴാക്കാതെ കുറഞ്ഞ വെള്ളത്തിൽ കുറേ തുണിയൊക്കെ അലക്കാന് പലരും ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ട് വെള്ളത്തിന്റെ ക്ഷാമം മൂലം അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ തോട്ടിലൊക്കെ പോയി അലക്കുന്നത് ദൂരെയുള്ള തോട്ടിലൊക്കെ പോയാണ് പലരും അലക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണത് പലര്ക്കും വെള്ളം പല സ്ഥലങ്ങളിലും ഇപ്പം ഭയങ്കര ക്ഷാമമാണ് അപ്പം അവരൊക്കെ ഉള്ള വെള്ളം കൊണ്ട് എങ്ങനെയൊക്കെയോ ആണ് അലക്കിയെടുക്കുന്നത് പിന്നെ സോപ്പിന്റെ ആണെങ്കിൽ അലര്ജി ഒക്കെ മൂലം സോപ്പ് ഉപയോഗിക്കാന് പറ്റാത്തവരുണ്ട് അപ്പം എല്ലാവര്ക്കൊന്നും വാഷിങ് മെഷീൻ ഉപയോഗിക്കാന് പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ കുറേ പേർ ബുദ്ധിമുട്ടുന്നവരുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താണ് വെള്ളമൊന്നും കുറേ അമിതമായിട്ട് ഉപയോഗിക്കാതെ കുറഞ്ഞ വെള്ളത്തിൽ കുറേ തുണിയൊക്കെ അലക്കാനൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടിപ്പം പിന്നെ ചെറിയ വെയിലത്ത് വരെ വേനല്ക്കാലത്താണെങ്കില് ചെറിയൊരു വെയിൽ വരുമ്പോഴത്തേക്ക് എല്ലാ തുണിയും പുറത്തേക്ക് ഇടുകയും എന്നിട്ട് മഴ തുളുമ്പുമ്പത്തേക്ക് അകത്തേക്ക് ഇടുവേം ഒക്കെ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും സാധാരണ വീടുകളിൽ ഉള്ളവർക്കൊക്കെ ഇത് അറിയാവുന്നതാണ് പിന്നെ എന്താണ് തേച്ചിട്ട് ഇട്ടുകൊണ്ട് പോവലും ഒക്കെ പതിവാണ് ഇനി ഇപ്പം മഴക്കാലം ആവുമ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെയായിരിക്കും ആ അങ്ങനെയൊക്കെയാണ് സാധാരണയായി എല്ലാവരും ഉണക്കുന്നത്